കുറച്ചു മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈവർ അല്ലേ ആ നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തി ഞാൻ കുറേ നേരമായില്ലേ വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് അർജൻ്റായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോവാനായിരുന്നു ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാനായിരുന്നു നിങ്ങൾ പന്ത്രണ്ടരയാവുമ്പോൾ എത്തും എന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ഒന്നരയായില്ലേ അപ്പോൾ അവർക്ക് ടൈമിന് ഫുഡ് കഴിക്കണം അപ്പം ഫുഡ് കഴിച്ചിട്ടുവേണം അവർക്ക് മരുന്ന് കൊടുക്കാൻ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആണോ ആ ബ്ലോക്ക് അല്ലേ പെട്ടെന്ന് ഒന്ന് എത്താൻ നോക്കുമോ കാരണമെന്താണെന്നു വച്ചാൽ അർജൻ്റായതുകൊണ്ടാണ് അല്ലേ കുഴപ്പമില്ലായിരുന്നു നമുക്ക് ടൗണിലൊക്കെ വല്ല പർച്ചെയ്സിങ്ങിനും പോകുവാനാണെങ്കിൽ ഓക്കേ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത് അങ്ങനത്തെയൊരു കാര്യത്തിനല്ലല്ലോ നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമല്ലേ ഇനിയിപ്പം എത്ര മിനിറ്റ് ആവും ഇവിടെ എത്തണമെങ്കിൽ പത്തു മിനിറ്റോ പത്തു മിനുട്ടാവുമ്പോഴേക്കും എത്തുമോ അങ്ങനെ ആണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഓട്ടോ വിളിച്ച് പോവും കേട്ടോ ആ ആ ഓക്കെ എന്നാൽ ആ ഒരു പത്തു മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു നോക്കാം അല്ലെങ്കിൽ ഞാൻ വിളിക്കില ഞാൻ വേറെ ഓട്ടോ വിളിച്ച് പോവും കേട്ടോ